ചെടികൾ അതുപോലെ തന്നെ മരങ്ങളും സംരക്ഷിക്കുന്നത് പ്രകൃതിക്കു ഗുണകരമായ രീതിയിലുള്ള നല്ല കാര്യങ്ങളാണ് അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിനു നല്ല ഓക്സിജൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഓക്സിജൻ കിട്ടുമ്പോൾ നമ്മൾ പുറ മനുഷ്യൻ പുറം തള്ളുന്ന കാർബൺഡൈ ഓക്സൈഡിനെ അത് ആഗീരണം ചെയ്യുന്നു ഒപ്പം തന്നെ ഈ പറയുന്ന ചെ ചെടികൾ കായ് പൂത്തു നിൽക്കുന്നതും കായ്ച്ചു നിൽക്കുന്നതുമായ ചെടികൾ കാണുന്നതിന് വളരെ ഭംഗിയായ രീതിയിൽ നിൽക്കുന്നതു കാണാനൊരു കണ്ണിനു നല്ല കുളിർമയുള്ള കാഴ്ചയാണ് മറ്റുള്ളവർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ഈ ഒരു നം ഒരു നല്ല കാഴ്ച്ച കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുള്ളതുപോലെ തന്നെ തുടർന്നു വരുന്ന സമൂഹം മുന്നോട്ടു വരുന്ന സമൂഹത്തിന് ഒരു നല്ല മെസ്സേജും കൂടിയാണ് ഈ പറയുന്ന രീതിയിലേക്കു മരങ്ങൾ സംരക്ഷിക്കുക ചെടികൾ സംരക്ഷിക്കുക പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കു വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് ഇതു സംരക്ഷിക്കുന്ന ഈ ചെടികളും കായ്കളും അതേപോലെ തന്നെ ചി മരങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നത് മുതിർന്നവർ ചെയ്യുന്നത് കണ്ടു കൊണ്ടാണ് താഴെ താഴെയുള്ള കുട്ടികൾ ഇതു കണ്ടു വളർന്നു വരുന്നത് ഒരു നല്ല കാഴ്ച ഒരു നല്ല അനുഭവം ആണ് എന്നുള്ളതോടൊപ്പം തന്നെ അവർക്കു ഭാവി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല മെസ്സേജും കൂടിയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്കു പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്